അതായത് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഒക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ പനി ജലദോഷം ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും എന്താ പറയുക ഗ്രാമങ്ങളിൽ ഒക്കെ കണ്ടുവരുന്നത് അല്ലാതെ എന്താ പറയുക ഇപ്പോൾ പുറമേ നഗരത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ നഗരപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് ഫുഡ് പോയിസനിങ് പിന്നെ കൊതുക് ഇതാക്കുന്ന അസുഖങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് കൂടുതലായിട്ട് അതായത് നഗരപ്രദേശങ്ങളിലെ ഈ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും സൗകര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നഗരത്തിലെ കൂടുതലും ഷോപ്പുകൾ ഒക്കെയാണ് അപ്പൊൾ അതുകൊണ്ടുതന്നെ അവിടെ എന്താ പറയുക ഈ വെള്ളം കെട്ടിക്കിടന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതലുമായിട്ട് അവിടെ ഈ കൊതുക് മുട്ടയിടാനും അങ്ങനത്തെ അസുഖങ്ങളൊക്കെയാണ് പുറമെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്നാ ഗ്രാമപ്രദേശങ്ങളെ കൂടുതലായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടു വരുന്നില്ല കാരണം ഗ്രാമങ്ങളിൽ എന്താ പറയുക വീടുകളൊക്കെ ഇടവിട്ട് ഇടവിട്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ടും അവിടെ അധികം അസുഖങ്ങളൊന്നും അങ്ങനെ കണ്ടുവരുന്നില്ല പിന്നെ എന്താ പറയുക വായുവിലൂടെ പകരുന്ന അസുഖങ്ങളോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഗ്രാമങ്ങളിലേക്ക് കൂടുതലും എത്തുന്നില്ല കാരണം ഗ്രാമപ്രദേശങ്ങളിലെ എന്താ പറയുക ആളുകളൊന്നും പുറത്തേക്ക് നഗരങ്ങളിലേക്ക് അധികം പോവാത്തത് കൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങളൊന്നും കൂടുതലായിട്ട് കണ്ടുവരുന്നില്ല ഇത്തരത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ എന്താ പറയുക ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആയിട്ട് വരുന്ന അസുഖങ്ങൾ ആയിട്ട് ഞാൻ കരുതുന്നത്